ഹലോ സുധാകരാ ഞാൻ എനിക്ക് എറണാകുളത്ത് വരെ പോകേണ്ട ആവിശ്യമുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് പിന്നെ മട്ടാഞ്ചേരിക്ക് പോകണം അപ്പം ഈ മട്ടാഞ്ചേരിക്ക് പോണേഞ്ഞാ യൂബര് ടാക്സിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപം അതെങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ നല്ലത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം പിന്നെ അതിനെങ്ങനെയാണ് അതിന്റെ ചാര്ജ് എങ്ങനെയാണ് കിട്ടാന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന്റെ എവിടെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പിന്നേ ആ അതുപോലെ ഡ്രൈവര്മാരുടെ സ്റ്റാന്ഡേഡ് ഇതൊക്കെ ഒന്ന് അന്നേഷ്ച്ചിട്ട് പറഞ്ഞേ ഞാൻ ഇതുവരെ യൂബര് ടാക്സി ഉപയോഗിച്ചിട്ടില്ല അത് കൊണ്ട് അത് ഒന്ന് ഡീറ്റെയിലായിട്ട് ഒന്ന് പറഞ്ഞ് തരാം സുധാകരന് പല പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ പല പ്രാശ്യം എറണാകുളത്ത് പോകുന്നതല്ലേ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ അപ്പോൾ ഒന്ന് അറിയിച്ചേനേട്ടൊ ഓക്കെ